അബ്ദുൽ കലാം മഹാത്മാ ഗാന്ധി ഓ എൻ വി കുറുപ്പ് സുഭാഷ് ചന്ദ്രബോസ് മദർ തെരേസ

ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഡോക്ടർ അംബേദ്കർ